ഗുഡ് മോർണിംഗ് ഞാൻ വിളിച്ചേന്നെച്ചാൽ നമ്മുടെ സ്കൂൾലെ കാര്യം ചോദിക്കാനാണ് ഇപ്പം അതായത് എല്ലാവരും നമ്മുടെ ലെസ്സൺ പ്ലാനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്

അതങ്ങനത്തെ രീതീലാണ് ലെസ്സൺ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാമോ ആ അത് അതിൽ ആ ലെസ്സൺ പ്ലാനിലെന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡായിട്ടുള്ളതെന്ന് മാം പരിശോധിച്ചിട്ട് നോക്കീട്ടുണ്ടോ ആ അത് എത്രയും പെട്ടന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അത്പോലെ തന്നെ നമ്മുടെ സ്കൂൾൽ നമ്മൾ ഒരു ലെസ്സൺ പ്ലാനെഴുതുമ്പം കോകരിക്കുലറായിട്ടുള്ള കാര്യങ്ങൾ അതിലിൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്താണ് ക്ലാസ്സിൽ ഉണ്ടാകുന്നവർ ക്ലാസ്സിലെന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുകയും അത് അവരിലതിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം ആ ലെസ്സൺ പ്ലാനെഴുതുമ്പോൾ അതതിൻറ്റേതായിട്ടുള്ള രീതീൽ തന്നാണോ എഴുതുന്നത്

ലെസ്സൺ ആ മാമിനെന്തേലും സജഷൻസുണ്ടോ ടീച്ചർമാരെടുത്ത് എന്തേലും പറയാൻ മാമിനെന്തേലും സജഷൻസുണ്ടോ അതായതീ ലെസ്സൺ പ്ലാനിംഗിനെ പറ്റിയോ നമ്മുടെ കോകരിക്കുലർ ആക്റ്റിവിറ്റീസിനെ പറ്റിയോ മാമിനെന്തേലും സജഷൻസവർക്ക് കൊടുക്കാനെന്തേലും സജഷൻസുണ്ടോ നമുക്ക് എങ്ങനെ നമ്മുടെ സ്കൂൾൽ ഡെവലപ്മെൻറ്റ് ചെയ്യാമെന്നതിനുള്ളതിൽ നമുക്ക് കാര്യം നമുക്ക് ടീച്ചേഴ്സിൻ്റടുത്തെങ്ങനെ അവരടുത്ത് നമ്മളത് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കും അതായത് നമുക്കെന്തേലും സ്റ്റാഫ് മീറ്റിംഗ് വരുമ്പോൾ നമുക്കത് അവർക്ക് പറഞ്ഞ് കൊടുക്കേണ്ടേ നമുക്കത് പറഞ്ഞൂടാ അത് എങ്ങനത്തൊരു ആ അതെ നമ്മളെ ടീച്ചേഴ്സേത് സെൻസിലായിരിക്കും അതെടുക്കുന്നത് അതല്ലേ ഇപ്പോൾ ഈ ലെസ്സൺ പ്ലാനവർ എഴുതുമ്പോൾ അവരതിൻറ്റേത് ആയിട്ടുള്ള എല്ലാ തരം അതായത് നമ്മുടെ ക്ലാസ്സിലവർ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെ രീതീലാണവർ പഠിപ്പിക്കുന്ന അതായതിപ്പോൾ അ പഠിപ്പിക്കുമ്പോൾ അ ആ എങ്ങനാണവർ കുഞ്ഞുങ്ങൾലേക്ക് എത്തിക്കുന്നത് എന്ന രീതീലാണോ അവരത് ചെയ്യുന്നത്

അതെ അതെ അതെ അതെ എനിക്ക് ചെക്ക് ചെയ്യണം അപ്പതിന് മുമ്പിട്ട് സബ്ജക്റ്റ് എന്ന നിലയിൽ എനിക്കറിയണമല്ലോ എന്താണ് അവരുടെ അവർ ചെയ്യുന്നത് എന്നെന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ലെസ്സൺ പ്ലാനെഴുതുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും പ്ലാന് നമുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ടീച്ചേഴ്സിന് കൊടുക്കുകയോ വേണോ എന്താണ് മാമിൻ്റെ ലെ ഒപ്പീനിയൻ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ താങ്ക് യൂ ഓക്കെ താങ്ക് യൂ മാം